ഹലോ ആ പറഞ്ഞോളൂ തീർച്ചയായിട്ടും നമുക്ക് ടീനാ ഫൗണ്ടേഷനിൽ നമുക്ക് കൂടുതലും അസിസ്റ്റഡ് കെയർ ലിവിങ്ങ് ആണ് അതായതൊരു ഒരു സഹായം ആവശ്യമുള്ളവരെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ് ആയിട്ട് സ്വന്തം കാര്യം സ്വന്തം ചെയ്യുന്ന അങ്ങനെ ഒരു ആൾക്കാരെയല്ല നമ്മൾ കൂടുതലും എടുക്കുന്നത് ഒരു അസിസ്റ്റൻറ് ആവശ്യം ഉള്ളവരെ അവർക്ക് വേണ്ട കെയറും കംഫോർട്ടും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത് ഈ ഒരു സ്ഥാപനത്തിൽ കൂടുതലും ഒരു സിക്സ്റ്റി എബൗ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കെയർ പ്ലാനിനെ പറ്റിയാണോ ഹെൽത്ത് കെയർ ഒരു ഇതിനെ പറ്റിയാണോ മാം ചോദിക്കുന്നത് ആ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് നമുക്ക് മൂന്ന് തരത്തിലാണ് നമ്മുടെ ഹെ ഹെൽത്ത്കെയർ ട്രീറ്റ് ട്രീറ്റ്മെൻറ് പോകുന്നത് നമുക്ക് ആദ്യമൊരു പാർഷ്യൽ കെയർ ഫുൾ ടൈം കെയർ ആൻഡ് നീഡ് ബേസ്ഡ് കെയർ അങ്ങനെയാണ് ഫുൾ ടൈം കെയർ എന്ന് പറയുമ്പോൾ ട്വൻറി ഫോർ ഹവേഴ്സും നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവും നമുക്ക് ഫുൾ നമ്മുടെ ഫുൾ കെയറിന് എല്ലാത്തിനും അസ്സിസ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടാവും പിന്നെ നമുക്ക് പാർഷ്യൽ കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു പകുതി സമയം ഇത്ര സമയം ഇത്ര മണി തൊട്ട് ഇത്രയും സമയം വരെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് സ്റ്റാഫിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതാണ് അങ്ങനെയാണ് പിന്നെ ഈ നീഡ് ബേസ്ഡ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യം അതിപ്പോൾ മരുന്ന് എടുത്താൽ മതി എല്ലാ ദിവസവും ഒന്ന് മരുന്ന് എടുത്ത് കൊടുക്കുവോ അല്ലെങ്കിൽ ഇന്ന സമയത്തൊന്ന് വെള്ളം എടുത്ത് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് പോവുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു പ്രത്യേക തരം ആവശ്യം ഉണ്ടേങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യും അതാണ് നീഡ് ബേസ്ഡ് എന്തെങ്കിലും നീഡ് ഉണ്ടെങ്കിൽ ആ നീഡിന് മാത്രം കെയർ അങ്ങനെയാണ് നമ്മൾ നീഡ് ബേസ്ഡ് അതെ ആ നീഡ് ബേസ്ഡ് ആണ് കുറേക്കൂടെ ക കുറച്ചുകൂടി മണി സേവിങ്ങ് മറ്റേത് കെയർ അനുസരിച്ച് നമ്മൾ ഹവേഴ്സ് അനുസരിച്ചാണ് പൈസ വരുന്നത് ഈ നീഡ് ബേസ്ഡ് ആവുമ്പോൾ പൈസ കുറയും അങ്ങനെയാണ് നമ്മൾ അത്

ആ തീർച്ചയായിട്ടും അപ്പോൾ നീഡ് ബേസ്ഡ് കെയർ മതി അതെ അതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് സോഷ്യൽ ഓ മതി നമുക്ക് അഞ്ച് മിനുറ്റ് ദൂരത്തിൽ തന്നെ നമുക്ക് തിരുവല്ലയിൽ ഹോസ്പിറ്റൽ ഉണ്ട് നമ്മൾ എല്ലാ കാര്യത്തിനും പോവുന്നത് ഹോസ്പിറ്റൽ ഉണ്ട് നമുക്ക് ആംബുലൻസ് സൗകര്യം ഉണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അത് മാത്രമല്ല നമുക്കൊരു ഇൻ ഹൗസ് സൈക്യാറ്റ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് നമുക്ക് ഡോക്ടർസ് ഇവിടെ വന്ന് കൺസൾടേഷൻ ഉണ്ട് നേഴ്സുമാർ ഉണ്ട് നമുക്ക് ഫുൾ ടൈം ട്വൻറി ഫോർ ഹവേഴ്സ് നേഴ്സും പിന്നെ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും മാം വറീഡ് ആവണ്ട തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഈ നമ്പറിലേക്ക് താങ്ക് യു